ഞങ്ങൾ മലയോര മേഖല ആയതുകൊണ്ട് ട്രേയ്ൻ സാധാരണ ഇല്ല ബസ്സിലാണ് ആളുകൾ മുഴുവൻ യാത്ര ചെയ്യുന്നത് ബസ്സിൽ സ്വന്തമായി ഒത്തിരി ആളുകൾക്ക് കാറും ബൈക്കുമൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുജനങ്ങൾ മുഴുവനും ആശ്രയിക്കുന്നത് ബസിനെയാണ് നല്ല ഒരു യാത്രമാർഗ്ഗമാണ് അതിൽ വലിയ ബുദ്ധിമുട്ട് ഒന്നുമില്ല നമ്മുടെ സമയത്ത് ബസ്സിൻ്റെ സമയത്ത് നമ്മൾ ഇറങ്ങി നിന്നാൽ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് യാത്രചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും യാത്ര ചെയ്യാനായിട്ട് സാധിക്കും ഇന്ന ആർക്കൊന്നുമില്ല എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്താം ഒരു ശകലം ദൂരത്തിനാണെങ്കിലും നമുക്ക് ബസ്സ് കയറി യാത്ര ചെയ്യാനായിട്ട് സാധിക്കും മറ്റുള്ളവരെ ആശ്രയിച്ചു നിൽക്കേണ്ട മറ്റേ പേടിയൊന്നുമില്ലാതെ ബസ്സിൽ കയറി യാത്ര സാധിക്കും വൃത്തിയുള്ള സുരക്ഷിതമാണ് അത്യാവശ്യം നമ്മൾ ബസ്സിൽ എപ്പോഴും സുരക്ഷിതവാണ് വലിയ ഭീഷണിയൊന്നും നമുക്ക് ഇല്ല വൃത്തിയുള്ള വാഹനങ്ങൾ തന്നെയാണ് വൃത്തിയില്ലാത്ത ഒരവസ്ഥ നമുക്ക് വരുന്നില്ല മെച്ചപ്പെടുത്താനുള്ള മേഖല പ്രത്യേകിച്ചു ഒന്നും തന്നെ ഇല്ല നന്നായിട്ട് ഇഷ്ടം മാതിരി ബസ്സുകൾ പോകുന്നുണ്ട് യാത്ര ചെയ്യാൻ പറ്റും വൃത്തി ഉണ്ട് പിന്നെ ബസ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിലും മിക്കവരും നമ്മുടെ ആവശ്യങ്ങൾ മാനിച്ചു കൊണ്ട് തന്നെ നമ്മൾ പിന്നേ അറിയപ്പെടാത്ത അറിയപ്പെടുന്ന സ്ഥലത്തൊക്കെ നമ്മൾക്ക് എന്തേലും സ്ഥലത്തൊക്കെ അറിയത്തില്ലാത്ത ഉണ്ടെങ്കിൽ അത് അവർ നമ്മളെ സഹായിക്കും ഇന്ന സ്ഥലത്താണ് ഇന്ന സ്റ്റോപ്പ് ഇവിടെ ഇറങ്ങിയാൽ മതി എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ തന്നു വേണ്ട പോലെ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് ഇതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത് അപ്പം ഏറ്റവും നല്ല ഒരു വാഹന സൗകര്യമാണ് ഈ ബസ്സ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചു യാത്ര ചെയ്യാനായിട്ട് സാധിക്കും